നീണ്ട ചരിത്രമുള്ളത് ഈ കുടുംബത്തിൽ അങ്ങനെ ആചാരങ്ങൾ അനുഷ്ഠിക്കാറൊന്നുമില്ല എന്നാൽപ്പോലും വിവാഹങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മുടെ പെണ്ണിൻ്റെ പെണ്ണിനെ ആണിൻ്റെ കൈകളിൽ പെണ്ണിൻ്റെ ഉപ്പ ഒരു ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെയും എല്ലാ ആൾക്കാരുടേയും മുന്നിൽ വച്ച് ആ ഉപ്പ കല്ല്യാണം കഴിക്കുന്ന ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നൊരു ചടങ്ങ് എല്ലാ സ്ഥലം എല്ലാ വീട്ടിലും കാണാം ഇത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് ഇതിന് നിക്കാഹ് എന്നാണ് പറയുന്നത് ഈ നിക്കാഹ് എന്നത് ഒരു പെണ്ണിൻ്റെ അച്ഛൻ ചെക്കൻ്റെ കയ്യിലേക്ക് പെണ്ണിനെ കൊടുക്കുന്നൊരു ചടങ്ങാണ് അവിടെ ആ ഒരു സദസ്സിലാണ് ചെക്കൻ പെണ്ണിനു നൽകുന്ന താലി അല്ലെങ്കിൽ മഹർ എന്ന് എല്ലാവരുടേയും മുന്നിൽ പ്രദർശിപ്പിച്ചതിനു ശേഷം അവർ പെണ്ണിൻ്റെ അച്ഛൻ ചെക്കൻ്റെ കയ്യിലേക്ക് പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്